ആധുനിക കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വളരെയേറെ കൂടി വരികയാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലെ ഒരു ജോലി കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ ഓരോ ദിവസം കൂടും തോറും ആ വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ മാറി മാറി വരികയാണ് കൂടുതൽ മെച്ചപ്പെട്ട് വളരുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലങ്ങളും ദിനംപ്രതി വളർന്നു കൊണ്ടിരിക്കുകയാണ് നിരവധി വാഹനങ്ങളും നിരവധി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗതാഗത സൗകര്യം വിദ്യാർഥികൾക്ക് വളരെ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വളരെ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്

എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നെ ആഗ്രഹിക്കുന്നുള്ളൂ അതിന് വേണ്ടി അവർ നല്ല സ്കൂള്കൾ അന്വേഷിക്കുന്നു എല്ലാം അടുത്തായിരിക്കണമെന്നില്ല സ്കൂളുകൾ അകലെ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോവേണ്ടതിനും പോവേണ്ടതിന് ഒരു വാഹന സൗകര്യം ആവിശ്യമാണ് എന്നാൽ ഒരു കുട്ടിയെ തൻ്റെ സ്കൂളിൽ കൊണ്ടേ വിടാൻ എല്ലാ മാതപിതാക്കൾക്കും കഴിയുകയില്ല അവർക്ക് അവരുടേതായ ജോലിക്ക് പോകണം അതേ സമയം തന്നെ കുട്ടികളെ കൊണ്ടു വിടാൻ പോകുമ്പോൾ അവരവരുടെ ജോലി സ്ഥലത്ത് ചെല്ലാൻ താമസിക്കുന്നു അപ്പോൾ മാതാപിതാക്കൾക്ക് മറ്റൊരു വാഹന വാഹനങ്ങളുടെ വാഹനങ്ങൾ ആവശ്യമാണ് അതിന് വേണ്ടി വളരെ വലിയ പങ്ക് വഹിക്കുന്നതാണ് സ്കൂളുകളിലെ ബസ്സുകൾ സ്കൂളിൻ്റെ സ്വകാര്യ ആവശ്യം മറ്റും സ്കൂളിൻ്റെ കുട്ടികളെ സുരക്ഷിതമായി അവരെ വീട്ടിലെത്തിക്കാനും വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്തിക്കാനും ബസ്സുകൾ വളരെ വലിയ ഒരു പങ്കു വഹിക്കണം എന്നിരുന്നാലും എല്ലാ കുട്ടികളും തന്നെ എല്ലാ കുട്ടികളും സ്കൂൾ ബസ്സുകളിൽ അല്ല വരിക ചിലവരുടെ മാതപിതാക്കൾ അവരെ കൊണ്ടു വിടുന്നു ചിലവർ പൊതു എല്ലാവരും തന്നെ സ്കൂൾ ബസ്സിനാണ് പോകുന്നത് എന്നിരുന്നാലും ചില കുട്ടികൾ പൊതു വാഹനങ്ങൾ ഉപയോഗിക്കുന്നു പ്ലെസ് വൺ പ്ലെസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലവർകൊക്കെ ലൈസൻസ് ഉണ്ടാവും അവർ അവരുടെ വാഹനങ്ങൾ എടുത്ത് സ്കൂളിൽ സ്വന്തമായി വരുന്നു എന്നാൽ അത് എപ്പെഴും നല്ല ഒരു കാര്യമല്ല കാരണം കുട്ടികൾ പതിനെട്ട് വയസ്സാകുന്നു അപ്പം ലൈസൻസ് എടുക്കുന്നു അതേ സ്കൂളിൽ അപ്പോൾ വണ്ടി ആയിട്ട് സ്കൂളിൽ വരുന്നു അത് പലപ്പോഴൊക്കെയും പല അപകടങ്ങൾക്കും കാരണമാക്കുന്നു അതിനൊക്കെ വച്ചു നോക്കുമ്പോൾ സ്കൂൾ ബസ്സുകൾ വളരെ നല്ല ഒരു ആവശ്യം വളരെ വലിയ ഒരു ആവശ്യമാണ് ഓരോ സ്കൂളുകൾക്കും കാരണം മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനാണ് നോക്കുന്നത് കാരണം മാതാപിതാക്കൾക്ക് വിശ്വാസം കുട്ടികളുടെ ജീവന് സുരക്ഷയും സ്കൂൾ ബസ്സുകളാണ്

ചില സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ സൈക്കിളായിട്ട് വരുന്നു അത് നല്ലതാണ് കാരണം അവരുടെ ആരോഗ്യവും നന്നായി നോക്കാം അതോടൊപ്പം അവർ സ്കൂളിലുമെത്താം സമയത്തിന് എത്തുകയും ചെയ്യാം അവരുടെ ആരോഗ്യം നല്ലതാവും എന്നാൽ സൂഷിച്ചു ഓടിച്ചില്ലെങ്കിൽ അതും വളരെ വലിയ ഒരു അപകടമാണ് വരുത്തി വയ്ക്കുന്നത് സൈക്കിളൊക്കെ സൈക്കിളിന് വരുമ്പോൾ അതിന് വലിയ സുരക്ഷയൊന്നും ഇല്ല അപ്പോൾ അ ത് ഒരു അപകടമുണ്ടായാൽ അത് കുട്ടികളുടെ ജീവന് തന്നെ ജീവന് തന്നെ ഒരു വെല്ലുവിളിയാണ്